ഞാൻ തയ്ക്കുന്ന വസ്ത്രത്തിൻ്റെ ഡിസൈനും പാറ്റേണും ഓൺലൈനിലുള്ള ഏതെങ്കിലും തയ്ക്കുന്ന സുഹൃത്തുക്കളും പറഞ്ഞുതരാറുണ്ട് അതിലുള്ള തുണികൾ ഇത് ചെയ്യുന്നതും അതിൻ്റെ ഓൺലൈൻ വഴി നോക്കിയാണ് കൂടുതലും ചെയ്യാറുള്ളത് ഓൺലൈൻ വഴി ആ അവർ കാണിച്ചുതരുന്ന ആ മോഡലിലാണ് തുണികളൊക്കെ തയ്ക്കുന്നതും അത് അവർ ഇത് അവരുടെ തുണിയിൽ മെഷീൻ വർക്കുകളുള്ള വർക്ക് ഉള്ള സാരികളൊക്കെ ആണെങ്കിലും അത് തൻ ഇത് ചെയ്യുന്നതെല്ലാം ഓൺലൈൻ വഴി അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴികളാണ് കൂടുതൽ ഇത് ചെയ്യുന്നത് ഓൺലൈൻ വഴിയുള്ള പിന്നെ ഇത് ചെയ്യുന്നതും അവർ ഓൺലൈൻ വഴി നമുക്ക് ആശയങ്ങളും അത് അതിൽ അത് മനസ്സിലാക്കി അത് ചെയ്യുന്ന ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ബ്രാൻഡുകളൊക്കെ ഓൺലൈൻ വഴിയെല്ലാം ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതിൽ നിന്നുള്ള അത് എടുത്താണ് തുണികളൊക്കെ തയ്ച്ചു കൊടുക്കാറുള്ളത് അതിൻ്റെ മ് ഡിസൈനുകളും പാറ്റേണും എല്ലാം നോക്കിയാണ് ചെയ്തുകൊടുക്കാറുള്ളത് അവർ അതിനിടയിൽ ഈ സുഹൃത്തുക്കൾ ആണെങ്കിലും പറഞ്ഞുതരും ഇവിടുന്ന് വാങ്ങിക്കുന്നതും അത് നല്ലതാണെന്നുള്ളതെല്ലാം ഓൺലൈൻ വഴിയാണ് വാങ്ങിച്ച് ഇരുന്നതും പിന്നെ എല്ലാം ഓൺലൈൻ വഴി കിട്ടുന്നതുകൊണ്ട് നമുക്ക് എളുപ്പം ആണല്ലോ സാരികൾക്കൊക്കെ സാരികളൊക്കെ ഡിസൈൻ ചെയ്തു കൊടുക്കാനും അവയും ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കാറുണ്ട് പിന്നെ സുഹൃത്തുക്കൾ ആരെങ്കിലും അവർ കൊണ്ടുവന്ന തുണികളൊക്കെ ആണെങ്കിലും ഉപയോക്താക്കൾ വന്ന് വാങ്ങിച്ചു കൊണ്ട് പോകുന്ന തുണികൾ ആണെങ്കിലും അവർക്ക് സുഹൃത്തുക്കൾ ആണെങ്കിൽ ആശയങ്ങളും ഒക്കെ പറഞ്ഞു തരാറുണ്ട് സുഹൃത്തുക്കൾ നമുക്ക് എപ്പോഴും ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചാൽ ഇന്ന ഇന്ന റേറ്റിന് കിട്ടും എന്നുള്ള ഇത് പറഞ്ഞുതരും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുകയും അത് തയ്ച്ച് കൊടുക്കാനുള്ള ഇത് കാണിക്കുവേം ചെയ്യും പിന്നീട് ഡിസൈൻ ചെയ്ത് ആ ക്രോഷേയുടെ ആണെങ്കിലും ചെയ്യാനായിട്ടുള്ള പിന്നെ ക്രോഷേ തയ്ക്കുന്ന സാരികളൊക്കെ ആണെങ്കിലും ക്രോഷേയുടെ ഇത് വെച്ച് തയ്ക്കാനുള്ള ഉണ്ട് അത് ഓൺലൈൻ വഴിയെല്ലാം കൂടുതൽ വാങ്ങിച്ചു വരുന്നതാണ് പിന്നെ സ്റ്റ ബ്രാൻഡുകളൊക്കെ ആണെങ്കിലും നല്ല ബ്രാൻഡിലുള്ള ബ്രാൻഡഡ് ഐറ്റം ഒക്കെ ഓൺലൈൻ വഴി ആണെങ്കിലും കിട്ടുന്നുണ്ട് തയ്ക്കാനുള്ള

നമ്മളെ സഹായിക്കുന്നതും ഉവ സുഹൃത്തുക്കൾ കൂടുതലും നമുക്ക് ഇത് ചെയ്ത് തരുന്നുണ്ട് പിന്നീട് വ് കൂടുതലും ഇപ്പോഴെല്ലാം ഓൺലൈൻ വഴി എല്ലാം കിട്ടുന്നുണ്ട് സാധനങ്ങളൊക്കെ എല്ലാം ഇപ്പോൾ ഏത് സാധനങ്ങൾ വേണമെങ്കിലും കടകളിലൊന്നും പോവേണ്ടല്ലോ എല്ലാം ഓൺലൈൻ വഴി നമുക്ക് സാധനങ്ങൾ കിട്ടാനുള്ള എളുപ്പങ്ങളുണ്ട് ഇന്ന ഇന്ന സാധനങ്ങൾ ഇന്ന ഇടുത്തണ്ടെന്നുള്ളത് നമുക്ക് കാണിച്ച് തരികയും നമ്മൾ ഇത് ചെയ്യുന്നത് സംശയങ്ങളെല്ലാം അവർ മനസ്സിലാക്കി തരും എല്ലാം ഓൺലൈൻ വഴിയാണ് സാദനങ്ങൾ വാങ്ങിച്ച് ഇത് ചെയ്യുന്നത് പിന്നെ ഉപഭോക്താക്കളാണ് സുഹൃത്തുക്കൾ വഴിയും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കൾ നമുക്ക് പറഞ്ഞുതരും ഇന്ന കടകളിൽ പോ ഇന്ന ബ്രാൻഡ് നല്ലതാണ് ബ്രാൻഡ് നല്ലതാണ് അത് സാരിക്കാണെങ്കിലും ഡിസ് ഇത് ചെയ്യുന്നതും സാരിയിലാണെങ്കിലും മറ്റെല്ലാ സാധനങ്ങളും നമുക്ക് ഇത് ചെയ്യുന്നതും ഇപ്പം എല്ലാം ഇതിൽ കൂടെ കാണാനുള്ളതുകൊണ്ട് നമ്മൾ അതിൽ കൂടി മനസ്സിലാക്കി ഓൺലൈൻ വഴി മനസ്സിലാക്കിയിട്ട് ചെയ്യും ഇഷ്ട ബ്രാൻഡിലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും ഓൺലൈൻ വഴിയാണ് കൂടുതലും വാങ്ങിക്കുന്നത് അതിനോട് താല്പര്യം ഉള്ളതാണെങ്കിൽ നമുക്ക് അത് നമ്മൾ അത് വസ്ത്രത്തിൻ്റെ ഡിസൈനും പാറ്റേണും നമ്മൾ നോക്കി കണ്ട് നമ്മൾ ചെയ്യാറുണ്ട് നമ്മളെ തീരുമാനങ്ങളൊക്കെ എടുക്കാനാണെങ്കിലും ഉപഭോക്താക്കളും ഓൺലൈൻ വഴി ഉപയോക്താക്കളും നമ്മൾ സുഹൃത്തുക്കളും ഇതാണ് സുഹൃത്തുക്കളും ചെയ്തു തരാറുണ്ട് പിന്നീട് നമ്മളെല്ലാം ഇപ്പം എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടുന്ന് കടകളിൽ പോവാതെ നമുക്ക് എല്ലാം ഓൺലൈൻ വഴി കിട്ടാറുണ്ടല്ലോ എല്ലാ പാറ്റേണും നമ്മൾ എല്ലാ കടകളിലും കടകളിൽ പോകേണ്ട കാര്യമില്ല നമ്മൾ അവിടെ നമ്മുടെ ഓൺലൈൻ വഴി നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും അത് നമുക്ക് വീടുകളിൽ കൊണ്ട് തരാനുള്ള ഇതുണ്ട് നമ്മൾ നമ്മൾ നിർമ്മിക്കുന്ന വസ്ത്രത്തിൻ്റെ ഡിസൈനും പാറ്റേണും ഒക്കെയായിട്ട് നമ്മൾ നോക്കിയിട്ട് നമ്മളിത് ഓൺലൈൻ വഴി നോക്കിയിട്ട് അവരെ അത് അറിയിപ്പിച്ചാൽ അവർ നമ്മളെ ഇത് ചെയ്ത് പിന്നെ മറ്റേ നൂൽ കൊണ്ടുള്ള ക്രോഷേയുടെ ഇതും ചെയ്യുന്നുണ്ട് നമുക്ക് എത്ര നേരം ഇരുന്ന് തയ്ച്ച് കൊടുത്താലും നമുക്ക് തൃപ്തിയാവുന്നിടം നമ്മളിത് തയ്ച്ച് എല്ലാവർക്കും കൊടുക്കാറുണ്ട് പിന്നീട് വേണ്ടത് എല്ലാ കാര്യവും നം നമ്മൾ സുഹൃത്തുക്കൾ വഴി സുഹൃത്തുക്കളോട് ചോദിക്കും ഇന്ന ഇന്ന സാധനം എവിടുന്ന് കിട്ടും എല്ലാം ചോദിച്ചു മനസ്സിലാക്കി നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ വസ്ത്രങ്ങൾ ആണെങ്കിലും വസ്ത്രത്തിൻ്റെ ഡിസൈനും പാറ്റേണും ഒക്കെ നമ്മൾ എവിടുന്നാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ വരുന്നത് ഇത് തയ്ക്കാനുള്ള ക്ഷമയും ഇതും എല്ലാം നമുക്ക് വേണം നമ്മൾ തയ്ച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് ചെയ്യുമ്പോഴും നമ്മുടെ ക്ഷമയിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് ബ്രാൻഡുകൾ നമ്മളെല്ലാം നമ്മൾ ചില ബ്രാൻഡുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് നമ്മളോട് ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യപ്പെടും ആ ബ്രാൻഡ് അവരുടെ അവരുടെ അത് വാങ്ങിക്കാനായിട്ട് നമുക്ക് താല്പര്യം വരും നല്ല ബ്രാൻഡിലുള്ള തുണികളൊക്കെ ആണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനോട് ഒരു സന്തോഷം തോന്നും എല്ലാം നമ്മളെ എല്ലാവരെയും സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ നന്നായി സഹായിക്കാൻ നായി നമുക്ക് വരു വരുന്നുണ്ട് ഇഷ്ട ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ഇതാണ് നമ്മൾ പട്ടിൻ്റെ തുണികൾ ആണെങ്കിലും നമ്മൾ എടുത്ത് പട്ടിൻ്റെ തുണി ചെയ്യാനും നല്ല ഇതാണ് നമ്മൾ വസ്ത്രത്തിൻ്റെ ഇത് നമ്മൾ തുണികൾ എടുത്ത് കൊണ്ടുവന്ന് നമ്മൾ നമ്മൾ കടകളിൽ പോയി തുണികൾ എടുത്തുകൊണ്ടുവന്ന് അതിൽ നമ്മൾ ഡിസൈൻ ചെയ്തു കൊടുക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഇന്ന ഇന്ന പാറ്റേൺ നമ്മൾ യൂട്യൂബിനകത്തൊക്കെ നോക്കി ഇന്ന ഇന്ന പാറ്റേൺ നമ്മൾ അത് ചെയ്യുന്നതും ഇതാണ് ഇപ്പോൾ എല്ലാം ഇതും എല്ലാ ഷോപ്പുകളിലും ഇത് വാങ്ങിക്കാനും കിട്ടാറുണ്ട് അപ്പോൾ പിന്നെ ഇന്ന ഓൺലൈൻ വഴി കിട്ടുന്നതെല്ലാം നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് ബ്രാൻഡുകൾ ആണെങ്കിലും നല്ല ബ്രാൻഡിലുള്ള തുണികൾ ആണെങ്കിലും നമുക്ക് സ്വീകരിക്കാനുള്ള ഇതുണ്ട് പിന്നെ തിരഞ്ഞെടുക്കുന്ന വസ്ത്രത്തിൻ്റെ ആണെങ്കിലും നമ്മളിപ്പം എല്ലാ തുണികൾ ആണെങ്കിലും എല്ലാ തു കടകളിലും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട് ആ തുണികൾ വാങ്ങിച്ച് നമ്മൾ അതിനകത്ത് ഡിസൈൻ ചെയ്തു കൊടുക്കുന്നതും നല്ല ഇതാണ് പിന്നീട് വരുന്നത് നമ്മൾ സുഹൃത്തുക്കൾ വഴി ആണെങ്കിലും നമുക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട് സുഹൃത്തുക്കൾ നമ്മളോട് ഇന്ന ഇന്നയിടത്ത് പോയി വാങ്ങിച്ചാൽ ഇന്ന ഇന്ന ഇത് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പോയി നമ്മൾ അത് വാങ്ങിക്കുന്നുണ്ട് പിന്നീട് വരുന്നത് വസ്ത്രത്തിൻ്റെ ഡിസൈനും പാറ്റേണും നമ്മൾ അത് ഇത് ചെയ്യണം നമ്മൾ തയ്യൽ തയ്യൽ മെഷീനിലൂടെ നമ്മൾ തയ്ച്ചെങ്കിലേ നമുക്ക് ഉള്ളൂ ഓൺലൈൻ വഴി നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം അതാണ് നമ്മുടെ ഇത് വരുന്നത് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഡിസൈനും പാറ്റേണും എങ്ങനെയാണെന്ന് വെച്ച് നമ്മൾ ഇത് ചെയ്യണം പല കാര്യങ്ങളും ഇത് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് നമ്മള് ബ്രാൻഡുകൾ ഇതുണ്ടെങ്കിൽ നമ്മൾ ഇതാണ് വരുന്നത് ഓൺലൈൻ വഴി വാങ്ങിച്ച് സാധനങ്ങൾ അവർ നമ്മളെ ഇത് കൊണ്ട് തരികയും നമ്മൾ അതിൻ്റെ വെച്ച് തയ്ക്കുകയൊക്കെ ചെയ്താൽ വസ്ത്രത്തിൻ്റെ ഡിസൈനും മറ്റ് ഇന്നതാണ് എന്ന് നമ്മൾ നോക്കാറുണ്ട്